സ്കൂൾ ബാഗിലെ ചില സ്കൂൾ ബാഗിലെ നമ്മൾ രാവിലെ നല്ല നല്ല ബുക്കൊക്കെ നല്ല പൊതിഞ്ഞു നല്ല വൃത്തിയിലു ബാഗിലിട്ടിട്ടൊക്കെ പോകുമ്പം തിരിച്ച് വരുമ്പം നല്ല മഴയാണെങ്കിൽ വന്നു നോക്കുമ്പോഴുണ്ടാവും പുസ്തകമൊക്കെ നനഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ പുസ്തകങ്ങളൊക്കെ മേശപ്പുറത്ത് വേറെ വേറെ എടുത്തുവെക്കണം പുസ്തകങ്ങൾ ഉണക്കിയെടുക്കാൻ നല്ല കഷ്ടപ്പെടും അതെന്താ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ബാഗിലിങ്ങനെ വെള്ളം തങ്ങി തങ്ങി തങ്ങി തങ്ങി നിന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും ബുക്കിലേക്കിറങ്ങി ഇറങ്ങും നമ്മൾ നേയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയിലു കൊണ്ടതായിരിക്കും അപ്പോൾ മഷിയൊക്കെയിങ്ങനെ പെരങ്ങി മാത്രമല്ല എഴുത്ത് എഴുത്തും തിരിയില്ല ഒന്നും തിരിയില്ല പിറ്റത്തെ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്കും എന്താവും ടീച്ചർ എന്താണോ അന്ന് പഠിപ്പിച്ചത് അതുപോലും ഓർമ്മ ഉണ്ടാവില്ല അത്രയ്ക്കും മാഞ്ഞിട്ടുണ്ടാവും വെള്ളം നനച്ച് ഇറങ്ങിയിട്ട് പിന്നെന്താണെന്ന് വെച്ചാൽ അഥവാ നമ്മൾ ബാഗ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല പൈസ ഒക്കെ കൊടുത്ത് ചിലപ്പോൾ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടാവും നമ്മളതിന്റെയകത്ത് ബുക്ക് ഒരു കവറിൽ കെട്ടിയിട്ടിട്ട് വേണം ബാഗിൽ ഇടാൻ അല്ലെങ്കിൽ മഴ പെയ്തിട്ട് ബുക്കൊക്കെ നനയില്ലേ അങ്ങനെയൊക്കെ സംഭവം ഉണ്ട് പിന്നെ കരിമ്പനടിക്കാൻ മഴയത്തൊക്കെ നല്ല കളർഫുൾ ബാഗൊക്കെ വാങ്ങും നമ്മൾ പിങ്ക് വൈറ്റ് ഒറ്റൊരു മഴ നനഞ്ഞാൽ ഫുള്ള് കരിമ്പനടിച്ച് പോകും മാത്രമല്ല ചില സിബ്ബൊക്കെ ഇങ്ങനെ ചില കുട്ടികൾ ഇങ്ങനെ രണ്ടായിട്ട് പിളർന്ന് ഇങ്ങനെ എന്താ പറയുക രണ്ടായിട്ട് പിളർന്നിട്ടുള്ള പിന്നെ ബാഗൊക്കെ ഇങ്ങനെ സിബ്ബൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടാവും ചില സമയം നമ്മളിങ്ങനെ എന്താ വലിച്ചിടണം എന്നാലൊക്കെ സിബ്ബ് നേരെ നിൽക്കുകയുളളൂ ക്വാളിറ്റി ഇല്ലാത്ത ചില സ്കൂൾ ബാഗൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും